ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് വേണ്ടി പാചകം ചെയ്തിട്ടില്ല എന്നാലും ചെറിയ തോതിൽ നമ്മുടെ റിലേറ്റീവ്സിനും കുറച്ചടുത്ത് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് പാചകം ചെയ്തിട്ടുണ്ട് നമ്മൾ ചോറും കറികളും നോൺ വെജ്ജും വെജ്ജും ഒക്കെയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു ബെർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു അപ്പം ആ ഫുഡ് ഒക്കെ എല്ലാവരും കഴിച്ചു അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അല്ലാതെ വരുന്ന ഫംഗ്ഷന് നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതിൽ ഫുഡ് ഉണ്ടാക്കാൻ വേറെ ആൾ വന്നെങ്കിലും അവരെ കൂടെ നിന്ന് നമ്മൾ കൈയ്യാളായിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം ഫുഡ് എപ്പോഴും നല്ലതാണെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു പിന്നെ നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതൊരു വല്ലാത്ത ഇതാണ് നമ്മൾ ഇത്രയും പേർക്ക് ഉണ്ടാക്കിയല്ലോ എന്നുള്ള ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുംകൂടെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അല്ലെങ്കിലും കൂടുതലും എനിക്കിഷ്ടപ്പെട്ട നോൺ വെജ് ഐറ്റംസ് ആണ് അതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കൂടുതലായി എനിക്ക് ഞാനൊരു ഈ നല്ല നല്ല ഫുഡ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും അപ്പോൾ അങ്ങനെ ഒരു വലിയകൂട്ടം ആൾക്കാർക്കല്ലെങ്കിലും ഒരുപാട് നമ്മളെ നമ്മളാൽ ഒതുങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയ ആഹാരം കഴി ആഹാരം നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നിയിട്ടുണ്ട്